പതിനാല് ഒന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി രണ്ട് പത്തൊമ്പത് നാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഏഴ് നാല് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തി നാല്